സാഹിത്യത്തിലും കവിതയിലും മറ്റു മറ്റു കലാ വിഷയങ്ങളിലൊക്കെ മലയാളഭാഷ ഉപയോഗിക്കുന്ന പല രീതിയിലാണ് കാരണം സാഹിത്യത്തിനൊക്കെ പറയുമ്പോഴത്തേനും അതൊരു പുരാതനമായ കാര്യമാണ് അതിനൊരു ചരിത്രമുണ്ട് അതിന് പുതിയ ലിപിയിലുള്ള മലയാളഭാഷ നമുക്ക് ഉ ഉപയോഗിക്കാൻ സാധ്യമല്ല കാരണം പ പഴയ പഴയ രീതിയിലുള്ള മലയാളമെന്നു പറഞ്ഞാൽ അതിന് ഒരുപാട് സംസ്കൃതങ്ങളും ഒരുപാട് ഒരുപാട് പുതിയ ഒരുപാട് പ പഴയ ലിപികളുണ്ട് ആ ലീപികളിലൂടെയാണ് ഇവരിതൊക്കെ സംസാരിക്കുന്നതു കാരണം സാഹിത്യമെന്നു പറയുമ്പോഴത്തേനും സാഹിത്യമെന്നൊക്കെ പറയുമ്പോഴത്തേനും ഒരു ഒരു പുരാതന ചരിത്രമൊക്കെ എഴ് അ പുരാതന ചരിത്രത്തിൻ്റെ കുറേ കാര്യങ്ങളൊക്കെയായിരിക്കും അതിൽ വരുന്ന അതിൽ കുറേയും കൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നൊരു കാര്യമെന്നു പറഞ്ഞാൽ ആ പുരാതന ചരിത്രത്തിൻ്റെ ഒരു പൊരുൾ നമുക്കതിൽ ഗ്രഹിക്കാൻ സാധിക്കും കാരണം ആ ഒരു പുരാതന ചരിത്രം വായിക്കുമ്പോൾ അല്ലെങ്കിൽ സാഹിത്യം വായിക്കുമ്പോൾ അതിലെ കവിതകളിലൂടെ നമുക്ക് ഒന്ന് വാ ഒന്നു കണ്ണോടിച്ചു കൊണ്ടു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് ആ ഒരു വായനയിൽ ആ ഒരു വായനയിൽ കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഉ മൂന്ന് നാലഞ്ചു കാര്യങ്ങളെന്നു പറഞ്ഞാൽ ഒന്നെന്നു പറയാം നമ്മൾ സാഹിത്യത്തിലൂടെ നമ്മൾ വായിക്കുന്നത് സംസ്കൃതം ഒക്കെയായിരിക്കും സംസ്കൃതവും ഈ പഴയ ലിപിയിലുള്ള ഭാഷയായിരിക്കും ആ ഭാഷ ശൈലിയാണ് ആ ഭാഷ ശൈലിയാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു ഒരു രീതിയിൽ നമുക്ക് കണക്കാക്കുകയാണെങ്കിൽ ഇപ്പോൾ മ മറ്റു കലാ കലാ കലയൊക്കെയാകും മറ്റു കലാവാസനയിൽ നോക്കുകയാണെങ്കിലും കലകളിലും നമുക്ക് കാണാൻ സാധിക്കും കലകളിലൊക്കെ നമുക്ക് മലയാള ഭാഷ യൂസ് ചെയ്യുമ്പോഴത്തേനും മലയാളഭാഷ നമ്മൾ സംസാരിക്കുമ്പോഴത്തേനും അല്ലെങ്കിൽ മലയാള ഭാഷയിലത് മലയാളത്തിൻ്റേതായ രീതിയിൽ തനിമയിൽ നമുക്ക് അതു പ്രകടമാക്കുമ്പോഴും ആ പ്രകടമാക്കുന്ന കാര്യത്തെ കൂടുതലായിട്ടു നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കും ഗ്രഹിക്കാനും മനസ്സിലാക്കാനും സാധിക്കും ആ ഒരു മനസ്സിലാക്കുമെന്നും എന്നു പറഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷേ ആ ഈ സംസ്കൃതമായ കലർന്നിരിക്കുന്ന ക കലർന്നിരിക്കുന്ന കാര്യങ്ങളായിരിക്കും ഇപ്പോൾ തന്നെ കൂടിയാട്ടം കുച്ചിപ്പുടി തെയ്യം ഭരതനാട്യം ഒക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ കലാരൂപങ്ങളാണ് അതെല്ലാം ആ കലാരൂപങ്ങളിൽ ആ കല രൂപങ്ങളിലൊക്കെയാണെങ്കിലും ഈ സാഹിത്യത്തിൻ്റെ ഒരു അർത്ഥവത്തായ കാര്യങ്ങൾ നമുക്ക് ഗ്രഹിക്കാൻ പറ്റും കാരണം സാഹിത്യം കലർത്തിയ അല്ലെങ്കിൽ സംസ്കൃതം കലർത്തിയ ഭാഷകളായിരിക്കും അതിൽ യൂ അപ്പോഴതിൽ ഉയോഗിക്കുന്നത് അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ആ ഒരു കലയ്ക്ക് അതിൻ്റേതായ അർത്ഥമുണ്ട് അതിൻ്റേതായ അതിൻ്റേതായ ഒരു തനിമയും നമുക്ക് ലഭിക്കും ഈ തനിമ ലഭിക്കാൻ വേണ്ടിയാണ് അവർ കൂടുതലായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്തു തരുന്നത് ഈ ക കലവാസന എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കൂടുതലായിട്ടു നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നൊരു കാര്യമാണ് പിന്നീ പറയുന്ന മലയാളഭാഷ എങ്ങനെ ഉപയോഗിക്കുന്നത് എന്നു ചോദിച്ചു കഴിഞ്ഞാൽ മലയാളം ഭാഷാ അതിൻറ്റേതായ പഴയ പഴയ പുരാതന രീതിയിലും പഴയ പുരാതനമായ ഈ പഴയകാലത്തെ അപ്പച്ചനും അമ്മച്ചിമാരൊക്കെ നമ്മൾ സംസാരിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ആ ഒരു ഒരു വ്യത്യസ്തമായ ഒരു വ്യത്യസ്തമായ ഒരു ലിപിയിലൂടെയാണ് അവർ സംസാരിക്കുന്നത് പഴയ ലിപി മാറ്റി പുതിയ ലിപിയിലേക്ക് ഇപ്പോൾ കടന്നു വന്നു കൊണ്ടിരിക്കുമ്പോഴത്തേനും അതിൻ്റേതായൊരു രീതിയിലേക്ക് നമുക്ക് അതിനെ മാനിക്കുകയും അനുമാനിക്കുകയും ചെയ്യാമെന്നു ഞാൻ വിശ്വസിക്കുന്നു